ഒന്ന് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് പത്തൊമ്പത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒന്ന് രണ്ട് രണ്ടായിരത്തിപ്പത്തൊന്പത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്പത് ഒന്ന് രണ്ടായിരത്തിപ്പത്ത് പത്ത് പത്ത് രണ്ടായിരത്തിപ്പതിനഞ്ച്